പഴയ പാട്ടുകളൊക്കെ നല്ല അര്ത്ഥവത്തായ ഈണത്തിലുള്ള പാട്ടുകളായിരുന്നു നമുക്ക് വീണ്ടും വീണ്ടും കേള്ക്കാന് താല്പര്യമുള്ള പാട്ടുകളായിരുന്നു എന്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന പാട്ടുകള് പിന്നെ പണ്ടത്തെ പാട്ടുകളൊക്കെ നല്ലെ നിത്യഹരിത ഗാനങ്ങളെന്ന പേരിലാണല്ലോ അറിയപ്പെട്ടിരുന്നത് നല്ല ഉഷാറുള്ള പാട്ടുകളായിരുന്നു പഴയ പാട്ടൊക്കെ കേള്ക്കാന് തന്നെ ഒരു രസമായിരുന്നു പണ്ടുള്ള പാട്ടുകള് പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകള് കേള്ക്കുമ്പോള് മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് വലിയ ഡി ജെ മുട്ടൊക്കെയുള്ള പാട്ടുകളാണ് ഇപ്പോള് കേള്ക്കുന്നത് നുഭവപ്പെടാറുണ്ട് അത് കേള്ക്കുമ്പോള് അതിന് പ്രത്യേകിച്ച് അര്ത്ഥമോ അങ്ങനത്തെ ഒന്നുമുണ്ടാവില്ല വെറുതെയൊരു ശബ്ദം മാത്രമിങ്ങനെ പക്ഷേ ഇപ്പോഴുള്ള കുട്ടികള്ക്കൊക്കെ ആണെങ്കില് ഡി ജെ മുട്ടൊക്കെ ഉള്ള പാട്ടേ പറ്റുള്ളു എനിക്കാണെങ്കില് അത് തീരേ ഇഷ്ടമല്ല പണ്ടത്തെ കാലത്തെ പാട്ടൊക്കെ കേള്ക്കുമ്പോള് മനസ്സിനുതന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ പാട്ട് ഇപ്പോഴും കേള്ക്കും കെട്ടോ ആ പാട്ട് ഫോണിലോ ഒക്കെ വരുകയാണെങ്കില് മുമ്പത്തെ പാട്ടൊക്കെ നല്ല അര്ത്ഥം വെച്ചിട്ടുള്ള പാട്ടുകളായിരുന്നു അന്നത്തെ പാട്ടുകളൊക്കെ അതൊക്കെ നല്ലോം കേള്ക്കാറുണ്ട് പക്ഷേ ഇപ്പോഴുള്ള കുട്ടികള്ക്കൊന്നും പഴയ പാട്ടുകളൊന്നും തീരെ താല്പര്യമില്ലല്ലോ അവര്ക്ക് ഏറെയിഷ്ടം ഇപ്പോഴത്തെ ഈ ഡി ജെ പാട്ടാണ് ഞാന് കൂടുതലും കേള്ക്കാറുള്ളത് മുമ്പുള്ള നല്ല അര്ത്ഥം വെച്ചിട്ടുള്ള പാട്ടുകളായിരുന്നു